പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഒമ്പത് ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഒമ്പത് പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി പതിനാല് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല്